അതായത് നല്ലൊരു നർത്തകനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ച് അതായത് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ താത്പര്യം കാണിക്കുന്നവരായിരിക്കും നല്ലൊരു നർത്ത നർത്തകനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും വൈഭവമുള്ള നർത്തകർ എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഓരോ അതായത് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പഠിക്കാൻ പോകുന്നൊരു നർത്തകനാണെന്ന് വെച്ചോ അപ്പോൾ അവർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നല്ലൊരു നർത്തകനിൽ നിന്ന് ലഭിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു പരിചരണമാണ് അതേപോലെ നല്ലൊരു പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെയാണ് അവരിൽ നിന്നും ലഭിക്കേണ്ടത് അപ്പം അങ്ങനെയുള്ള പ്രാക്ടീസും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് നല്ലവണ്ണം അതായത് മുന്നേറാനുള്ളൊരു ശക്തി കിട്ടും അപ്പം ഇവർ അതായത് നർത്തകൻ നല്ല രീതിയിൽ നല്ല നൃത്തമാ കാര്യങ്ങളുമൊക്കെ പ്രാക്ടീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മര്യാദക്ക് നമുക്ക് നൃത്തകാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനും പറ്റും നമുക്ക് അതായത് നല്ല നല്ല സ്റ്റേജുകളൊക്കെ നമുക്ക് ഒരുപാട് കിട്ടും നമുക്ക് സ്റ്റേജിൽ നല്ല നല്ല പ പരിപാടികൾ ചെയ്യാനും പറ്റും